എനിക്ക് ഏറ്റവും കൂടുതല് കളിക്കാൻ ഇഷ്ടമുള്ള ഏതാ ഗെയിം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാൻഡി ക്രഷ് ഇഷ്ടമാണ് അതേപോലെ പബ്ജി ഇഷ്ടാണ് ഫ്രീഫയർ അങ്ങനെയുള്ള ഗെയിമുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇപ്പോൾ ഞാൻ കൂടുതലും എൻ്റെ ഫോണിൽ ആ ഗെയിമുകളൊക്കെ കാണിക്ക കളിക്കാറുണ്ട് ഇപ്പോൾ അത് കൂടുതലും കൊറോണ ടൈപ് ടൈമിലാണ് കൂടുതലും കളിക്കാൻ തുടങ്ങിയത് ആദ്യമൊന്നും അങ്ങനെ കളിക്കില്ലായിരുന്നു പിന്നെ എനിക്കാദ്യം ഫോണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആണ് ഫോണ് എൻ്റെ എൻ്റെ അടുത്ത് ഇണ്ടായിരുന്ന ഫോണ് അത്ര നല്ല ഫോണ് ആയിരുന്നില്ല അപ്പോൾ ഭയങ്കര ഹാങാരുന്നു അപ്പോൾ ഗെയിമൊക്കെ കേറ്റിട്ടുണ്ടെങ്കിൽ അത് കൂടുതല് ഹാങ് ആവാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഗെയിമൊന്നും അതില് കേറ്റിട്ടിണ്ടാർന്നില്ല അപ്പോൾ പുതിയൊരു ഫോണ് മേടിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ പുതിയൊരു ഫോണ് മേടിച്ച് തന്നിട്ടുണ്ടാർന്നു അപ്പോൾ ആ ഫോണില് പിന്നെ കൂടുതലും കൊറോണ ടൈമിലാണ് നമ്മള് ഒരുപാട് ടൈമില് ടൈമ് അതായത് വെറുതെ ഇരിക്കുവാണല്ലോ അപ്പം ആ ടൈമില് പിന്നെ നമ്മള് ഗെയിമും കാര്യങ്ങളൊക്കെ കേറ്റി ആ ടൈമിലാണ് കളിക്കാൻ തുടങ്ങിയത് ഗെയിമൊക്കെ ഒരുപാട് ഇഷ്ടാണ് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇങ്ങനത്തെ അതായത് എന്റെ കൈയില് പബ്ജിം ഫ്രീഫയറും കാൻഡിക്രഷും ഒക്കെ ആണ് ഉള്ളത് അപ്പോൾ അതൊക്കെ ആണ് ഞാൻ കൂടുതലും കളിക്കാറ് അപ്പോൾ നമ്മള് ഗ്രൂപ്പ് ആയിട്ടൊക്കെ ആണ് കളിക്കാറ് കൂടുതലായിട്ടും അങ്ങനെ കളിക്കാനാണ് കൂടുതലും ഇഷ്ടം